ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ എനിക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നെ അപ്പം എത്രെയും പെട്ടെന്ന് വേണം ഇപ്പം ഞങ്ങൾ ഒരിടം വരെ പോയേക്കുവായിരുന്നു അതുകൊണ്ട് ഇപ്പം ഗ്യാസ് തീർന്ന് അപ്പം പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഗ്യാസ് തീർന്നപ്പം ഞാൻ എന്റെ ഐഡിയും ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സും പറഞ്ഞുതരാവേ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് ഗ്യാസൊന്ന് എത്തിച്ചു തരികയായിരുന്നുവെങ്കിൽ ഉപകാരമായിരുന്നു അപ്പം എന്റെ ഐ ഡി എന്നുപറയുന്നത് മൂന്ന് നാല് അഞ്ച് ഏഴ് രണ്ട് ആണ് ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സെന്നു പറഞ്ഞാൽ പോളക്കൽ ഹൌസ് കൊടുപ്പന പി ഒ ആലപ്പുഴ അപ്പം ഒന്ന് പെട്ടെന്ന് വന്ന് ചെയ്തേക്കാമോ സാറെ